നമ്മുടെ സമൂഹത്തിൽ സാധാരണ കൂടുതലായിട്ടും കാണുന്നത് പകർച്ചവ്യാധികളാണ് പകർച്ചവ്യാധികൾ എന്ന് വെച്ചാൽ വേണ്ട വിധത്തിൽ അതിനെ ബോധവൽക്കരണപ്പെടുത്താതിരിക്കുന്നതിൻ്റെ കാര ഫലമായിട്ട് പകർച്ച അത് പകട പകർന്ന് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം തന്നെ ഒരു വൈറൽ ഫീവർ ആയിട്ടുള്ള ഒരു പനി വരികയാണെന്ന് വെച്ചോ അപ്പോൾ തന്നെ കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ഒരു മാസ്ക് ഉപയോഗിക്കാൻ പറയുക തുമ്മൽ ചുമ ഇതിൽ നിന്നൊക്കെ നമുക്ക് അടുത്തുള്ളവരിലേക്ക് ഈ രോഗം അപ്പോഴേ പടർന്നുപിടിക്കുകയാണ് അന്നേരം നമ്മൾ ഒരു മാസ്ക് ഉപയോഗിക്കാൻ പറയുക അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ കുറേ നമ്മുടെ ആളുകളിലേക്ക് ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതുപോലെ തന്നെ സാംക്രമികേതര രോഗങ്ങൾ ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ പോഷക ആഹാര കുറവുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ദിവസേന അസുഖങ്ങളാണ് ഇതെല്ലാം നമ്മൾ ഈ സമൂഹത്തിൽ അമി അമി അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ആണ് പ്രായമായിട്ടുള്ളവർക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരം ലഭിക്കുന്നില്ല അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം തന്നെ നമ്മുടെ ആളുകളിൽ സാധാരണ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക നമ്മുടെ ഗവൺമെൻറ് ഇത് ഒരു അടിയന്തര പ്രശ്നമായിട്ട് കരുതി കൊണ്ട് ഇതിനുവേണ്ടി ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആളുകളിലുള്ള ഈ പകർച്ചവ്യാധികൾ തടയാനും ഈ ഉണ്ടാകുന്ന ഓരോ കാലാവസ്ഥ അനുസരിച്ചുണ്ടാകുന്ന രോഗങ്ങൾ തടയാനും എല്ലാം സഹായിക്കും പോഷകാഹാര കുറവുകൊണ്ട് ഒരാൾ പോലും മരിക്കാൻ ഇടയാകാതിരിക്കട്ടെ എല്ലാവർക്കും എല്ലാം നിമിഷവും ആഹാരം ലഭിക്കാനും നല്ല ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു പൗരനെ വാർത്തെടുക്കാൻ നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയ്ക്ക് കഴിയണമെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഈ ലോകങ്ങളെല്ലാം ഇല്ലാതാകണം അതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും നമ്മുടെ ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പകർച്ചവ്യാധിയോ രോഗങ്ങളോ പോഷകാഹാര കുറവുകൊണ്ടോ മരണമോ ഇതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അത് നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്